ഇപ്പോൾ സ്റ്റാമ്പുകളെന്നൊക്കെ പറഞ്ഞാൽ ഞാന് സ്കൂൾ കാലം തൊട്ട് സ്റ്റാമ്പുകളൊക്കെ ശേഖരിക്കാൻ തുടങ്ങിയത് സ്കൂളില് നമുക്ക് പലതരം സ്റ്റാംബുകള് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം സ്കൂളിൽ നിന്ന് തന്നെ എനിക്ക് ഒര് പ്രചോദനം ഉണ്ടായത് സ്കൂളുകളിൽ നിന്നൊക്കെ നമുക്ക് കുറെ എന്താ പറയുക ഇപ്പം ആഗസ്റ്റ് പതിനഞ്ചിനാണെങ്കിലും റിപ്പബ്ലിക്ക് ഡേക്കാണെങ്കിലും നമുക്ക് സ്റ്റാമ്പ്കള് കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ശേഖരിച്ച് തുടങ്ങിയത് എൻ്റെ ഒര് സ്റ്റാമ്പ് ശേഖരണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് ആ സമയങ്ങളിലൊക്കെ ഞാന് സ്റ്റാമ്പ് ശേഖരിച്ച് അങ്ങനെ എല്ലായിടത്തും നിന്ന് ഞാൻ സ്റ്റാമ്പ് കളക്ട് ചെയ്യാൻ തുടങ്ങി സ്റ്റാമ്പ് കളക്ട് ചെയ്തിട്ട് ഇപ്പം എൻ്റെടുത്തൊരു പത്ത് മൂവായിരത്തോളം സ്റ്റാമ്പ് കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പലതരം അതായത് വെറൈറ്റി സ്റ്റാമ്പ് കാര്യങ്ങളെക്കെയാണ് എൻ്റെടുത്ത് ഉള്ളത് പിന്നെ നാണയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് പഴയ ഇരുപത് പൈസ അമ്പത് പൈസ ഇരുപത്തിയഞ്ച് പൈസ ഒര് പൈസ രണ്ട് പൈസ ഇങ്ങനത്തെ കുറെ പൈസകള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അണകള് അതായത് എന്താ പറയുക കാലണ ഒരണ അങ്ങനത്തെ അണകള് കാര്യങ്ങള് പിന്നെ നോട്ട്കളൊക്കെ ഉണ്ടായിരുന്നു പഴയ കാലത്തെ നോട്ടുകള് പിന്നെ ഇപ്പോൾ നമ്മള് നിരോധിച്ച നോട്ടുകളും അഞ്ഞൂറിൻ്റെ നോട്ട് ആയിരത്തിൻ്റെ നോട്ട് പിന്നെ ആ ഇരുപതിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യില് ഇപ്പഴും ഉണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത് എൻ്റെയൊരു ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല രീതിയിലുള്ള ഇതാ ഇത് ഞാൻ ആക്കിയിട്ടുണ്ട് ഇത്രയും വർഷമായിട്ടും എൻ്റെ കയ്യില് ഈ കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ ഉണ്ട്